ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കലയ്ക്കാണ് പലതരത്തിലുള്ള കലകൾ നമ്മളുടെ നാടുകളിലുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു പ്രാധാന്യം കൊടുക്കണം കലയ്ക്ക് ധാരാളം കുട്ടികൾക്ക് കലയ്ക്ക് എന്താ കഴിവുള്ള കുട്ടികളുണ്ട് അപ്പോൾ അതിനെല്ലാം നാമെല്ലാം എന്താ പറയുകയ തിരഞ്ഞെടുത്ത് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് കലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് കലയെ വളർത്തിക്കൊണ്ടു വരണം ഇനി വരുന്ന തലമുറകൾക്ക് കലയ്ക്ക് എന്താ പറയുക ഒരു പ്രാധാന്യം കൊടുത്തവരെ വളർത്താനായിട്ടു ശ്രദ്ധിക്കാം